എൻ്റെ പ്രോഡക്ട് ഹീറ്ററാണ് അപ്പം അത് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കറണ്ടിൻ്റെതായതുകൊണ്ട് നമുക്ക് ഷോക്കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ വെള്ളത്തിൽ ആണല്ലോ ഇറക്കി വയ്ക്കുന്നത് അപ്പം ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹീറ്ററിന് പിന്നെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അതായത് നമ്മൾ ഇങ്ങനെ കുത്തി വച്ചിട്ട് ഇപ്പം എൻ്റെ വീടിൻ്റടുത്തുള്ള വീട്ടിൻ്റ അടുത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു

അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാണ് നമ്മളെ ഈ അടുപ്പ് കത്തിക്കാനൊക്കെ മടിച്ചിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കുന്നത് പക്ഷേ നമ്മൾ അത് മേടിക്കുന്നതിന് കൊഴപ്പമില്ല പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കറണ്ടിൻ്റെ ആയതുകൊണ്ട് നമ്മുക്ക് ഷോക്ക് അടിക്കാനും അതായത് ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതാണിപ്പോൾ നെഗറ്റീവ് എന്നു പറഞ്ഞാൽ അതൊക്കെയാണ് പറയാനുള്ളത്